എന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിനു ഗ്യാസ് ആണ് അതായത് പിന്നെ നമ്മൾ പാചക വാതക ഗ്യാസ് ആണ് അപ്പം അത് അതിന്റെ പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് സമയ ലാഭം ഉണ്ടാവും കാരണം നമ്മൾ ഈ അടുപ്പ് കത്തിച്ച് ചായയും കാപ്പിയും ഒക്കെ വയ്ക്കുന്നതിലും ഏറ്റവും എളുപ്പം ഗ്യാസിലാണ് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചായയും അതൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും ഗ്യാസിൽ പക്ഷേ അടുപ്പ് കത്തിക്കാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കരി ഒന്നും പിടിക്കില്ലല്ലോ അതായത് അടുപ്പിൽ വയ്ക്കുമ്പം പാത്രങ്ങൾക്കൊക്കെ കരി പിടിക്കുമല്ലോ അപ്പോൾ ഇതിന് കരി ഒന്നും പിടിക്കില്ല പിന്നെ നെഗറ്റിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആണ് അതായത് നമ്മൾ ഇപ്പോൾ രണ്ട് മാസം ഒക്കെ കൂടുമ്പം നമ്മൾ അതായത് ആയിരത്തഞ്ഞൂറ് അത് ഗ്യാസ് തീരും അപ്പോൾ നമ്മളിപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയായി ഗ്യാസിന് അപ്പം റേറ്റ് കൂടുതലാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ് ഗ്യാസ് ഒക്കെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരണം വരെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം അതൊരു നെഗറ്റിവ് ആണ് ഗ്യാസിന്റെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം